നമ്മുടെ അടുത്ത വീട്ടിലൊരു തോട്ടമുണ്ട് അവിടെ പച്ചക്കറി കൃഷിയുണ്ട് അതുപോലെത്തന്നെ പൂക്കളൊക്കെയുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മളവിടെ ഇടയ്ക്ക് സഹായിക്കാൻ ഒക്കെ പോകും നനയ്ക്കാനും അതുപോലെത്തന്നെ വളമിടാൻ അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ നമ്മൾ പോകാറുണ്ട് അപ്പോൾ ഇപ്പോൾ പൂക്കളൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ അവിടെ അത് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തു വെയ്ക്കാൻ ഒക്കെ നമ്മൾ അങ്ങനെയൊക്കെ പോകാറുണ്ട് പിന്നെ ഓരോ എന്താ പറയുക പുതിയ പുതിയ ടിപ്പുകൾ അവർ പറഞ്ഞു തരുമ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യുക ചെയ്തു കൊടുക്കാറുണ്ട് അവരിങ്ങനെ പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം ഒരുപാട് പൂക്കളും അതുപോലെത്തന്നെ പച്ചക്കറികളൊക്കെയുണ്ട് അപ്പോൾ ഒരു ഒരു ബാ പച്ചക്കറിക്കൊക്കെയാണെ നമ്മുടെ ഒരു രണ്ട് മൂന്ന് ഒരു മൂന്നാല് വീടുകൾക്കൊക്കെ ക ഉള്ളതുണ്ട് അവർ വിക് പുറത്തൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല നമ്മൾക്ക് ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് അങ്ങനെ അങ്ങനെയൊരു തോട്ടം കൃ തോട്ട കൃഷിയുണ്ട്